ടിക്കറ്റ് ബുക്കിംഗ് ഹോട്ടൽ ബുക്കിംഗ് പുതുക്കിയ യാത്രാസമയം പ്ലാറ്റ്ഫോം നമ്പറുകൾ സ്റ്റേഷൻ അല്ലെങ്കിൽ ബസ് ഡിപ്പോട്ട് ലൊക്കേഷനുകൾ തുടങ്ങിയവയുടെ കാര്യത്തിൽ ഗതാഗതം എളുപ്പമാക്കുന്നതിനൊക്കെ സാങ്കേതികവിദ്യ സാങ്കേതികവിദ്യ വളരെയധികം സഹായിക്കുന്നുണ്ട് കാരണം ഈ ഈയിടെയാണ് ഇൻറർനെറ്റിൻ്റെ ഉപയോഗം എല്ലാവർക്കും മനസ്സിലായതും എല്ലാവരും എല്ലാ സാധാരണക്കാരും എല്ലാ മനുഷ്യരും തന്നെ ഉപയോഗിക്കാൻ തുടങ്ങിയതും ഇപ്പോള് ഇൻറർനെറ്റിൻ്റെ സഹായത്തോടുകൂടി അല്ലാതെ ഒരു ദിവസം പോലും കഴിഞ്ഞുകൂടാൻ സാധാരണ മനുഷ്യർക്ക് കഴിയുന്നില്ല അത്രമാത്രം ഇൻറർനെറ്റിൻ്റെ ആധിപത്യം ആധിപത്യം തന്നെ സ്ഥാപിക്കുക ഉണ്ടായി ഇവിടെ മനുഷ്യരുടെ ഇടയിൽ അതുകൊണ്ട് ഒരുപാട് സേവനങ്ങള് നമുക്കിതുവഴി ലഭ്യമാകുന്നുണ്ട് ടിക്കറ്റ് ബുക്കിംഗ് ആയാലും നമുക്ക് ഏത് മുക്കിലിരുന്ന് ഏത് കോണിലിരുന്ന് കൊണ്ടും നമുക്ക് എവിടെ പോകണമെന്നുള്ള ടിക്കറ്റും നമുക്ക് ഓൺലൈനിലൂടെ ഓരോ ആപ്പുകൾ വഴി നമുക്ക് ലഭ്യമാണ് അതുകൊണ്ടുതന്നെ വളരെ എളുപ്പത്തിൽ വള ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ടിക്കറ്റ് ബുക്കെയ്യാൻ നമുക്ക് സാധിക്കും അതുപോലെതന്നെ ഹോട്ടൽ ബുക്കിംഗ് ഹോട്ടൽ ബുക്കിങ്ങും നമുക്ക് ഏറ്റവും എളുപ്പന്ന് തന്നെ എവിടെ ഇരുന്നുകൊണ്ടും തന്നെ നമുക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് ഇപ്പോഴുള്ള ഏറ്റവും നല്ല ഒരു എളുപ്പമായിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് പ്ലാൻ ചെയ്ത് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇഷ്ടമുള്ള രീതിയിലുള്ള ഹോട്ടല് നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് ബുക്ക് ചെയ്യാനുള്ള സംവിധാനം ഇപ്പോൾ ഉണ്ട് നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് ഹോട്ടലുകളുടെ ചിത്രങ്ങൾ കാണുവാനും നമുക്ക് അത് വഴി ബുക്ക് ചെയ്യാനും നമുക്ക് സാധിക്കും അതുപോലെ തന്നെയാണ് പുതുക്കിയ യാത്രാ സമയം ഇപ്പോൾ നമുക്ക് ഒരു ഒരു യാത്ര ഉണ്ടെങ്കിൽ ആ യാത്ര ആ യാത്രയ്ക്ക് ആവശ്യമായ നമ്മുടെ ഫ്ലൈറ്റ് അല്ലെങ്കിൽ ട്രെയിൻ അല്ലെങ്കില് ബസ് തുടങ്ങിയവ ഏത് സമയത്താണ് പുറപ്പെടുന്നത് എന്നും ഏത് സമയത്താണ് എത്തുന്നതെ എത്തുന്നതെന്നും എവിടെയൊക്കെ നിർത്തും എന്നുള്ളതും എല്ലാം നമുക്ക് കൃത്യമായി തന്നെ ഈ ആപ്പുകൾ വഴി നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും അതുകൊണ്ട് ഇപ്പോള് ബസോ ഫ്ലൈറ്റോ തുടങ്ങിയവയൊക്കെ താമസിച്ച് താമസിക്കുകയാണെങ്കിലും ഡിലേ ആയാലും നമുക്ക് അത് വളരെ കൃത്യമായി തന്നെ നമുക്ക് കറക്റ്റ് സമയത്ത് തന്നെ കൃത്യം സമയത്ത് തന്നെ നമുക്ക് അതെല്ലാം ഫോണിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെതന്നെയാണ് പ്ലാറ്റ്ഫോം നമ്പറുകളും സ്റ്റേഷൻ അല്ലെങ്കിൽ ബസ് ഡിപ്പോട്ട് ലൊക്കേഷനുകൾ തുടങ്ങിയവ ഏതൊക്കെ ലൊക്കേഷനിലാണ് എപ്പോഴൊക്കെയാണ് നമ്മടെ ബസുകൾ നിർത്തുന്നതെന്നും എത്തുന്നതെന്നും തുടങ്ങിയ കാര്യങ്ങളും ഏത് പ്ലാറ്റ്ഫോമിലാണ് വരുന്നതെന്നു വരെ ട്രെയിനിൻ്റെ കാര്യം അല്ലെങ്കിൽ ഏത് പ്ലാറ്റ്ഫോമിലാണ് വരുന്നതെന്ന് വരെ നമുക്ക് വേറീസ് മൈ ട്രെയിനിലൂടെ വേർ ഈസ് മൈ ട്രെയിൻ ആപ്പ് തുടങ്ങിയവയിലൂടെയൊക്കെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും ട്രെയിൻ്റെ സമയം വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയം എവിടെ എത്തി ഇനി എത്ര നേരം കൊണ്ട് നമുക്ക് ഇന്ന സ്ഥലത്ത് എത്താൻ സാധിക്കും താമസിച്ചാണോ വരുന്നത് തുടങ്ങിയ എല്ലാ വിവരങ്ങളും നമുക്ക് ഫോണിലൂടെ തന്നെ കണ്ടെത്താൻ സാധിക്കുന്നുണ്ട് അതുപോലെതന്നെ ഗതാഗതം ഈയിടെയായിട്ട് നമുക്ക് സാധാരണ ഒരു സ്ഥലത്ത് നമുക്ക് പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത് പോകണമെങ്കിൽ വഴി അറിയില്ല എങ്കിൽ നമുക്ക് ചോദിച്ചു ചോദിച്ച് മാത്രമേ പോകാൻ സാധിക്കുന്നുണ്ടായിരുന്നുള്ളൂ നമുക്ക് ഓരോ സ്ഥലത്ത് നിർത്തി ഇന്ന സ്ഥലത്തേക്കുള്ള വഴി ഏതാണ് എന്താണ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ചോദിച്ച് മാത്രമേ പോകാൻ സാധിക്കയുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ നമുക്ക് ഇൻറർനെറ്റിൻ്റെ സഹായത്തോടുകൂടി ഗൂഗിൾ മാപ്പ് വഴി നമുക്ക് ഏത് സ്ഥലത്തെയും വഴി നമുക്ക് നിഷ്പ്രയാസം കണ്ടെത്താൻ സാധിക്കും ഫോണിൽ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് ലൈവ് ലൊക്കേഷനിലൂടെ നമ്മുടെ വണ്ടി എവിടെ എത്തി ഇനി എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് എല്ലാം നമുക്ക് വളരെ കൃത്യമായി പറഞ്ഞു തരുന്ന സംവിധാനങ്ങൾ ഇന്ന് നമ്മുടെ ഫോണുകളിൽ തന്നെ ഉണ്ട് ഫോണുകളിൽ തന്നെ ഉണ്ട് അതുകൊണ്ട് ഇൻ്റെർനെറ്റിൻ്റെ സഹായം അല്ലെങ്കിൽ സാങ്കേതികവിദ്യയുടെ സഹായം ടിക്കറ്റ് ബുക്കിംഗ് ഹോട്ടൽ ബുക്കിംഗ് പുതുക്കിയ യാത്രാ സമയം പ്ലാറ്റ്ഫോം നമ്പറുകൾ സ്റ്റേഷൻ അല്ലെങ്കിൽ ബസ് ഡിപ്പാട്ട് ലൊക്കേഷനുകൾ തുടങ്ങിയ കാര്യത്തിൽ ഗതാഗതം എളുപ്പമാക്കുന്നതിന് വേണ്ടി ഉള്ള ഈ സാങ്കേതികവിദ്യ വളരെ വളരെയേറെ സഹായിക്കുന്നുണ്ട്